എൻ്റെ വീടിനടുത്ത് ലഭ്യമായ പത്രങ്ങൾ എന്ന് പറയുമ്പോൾ ദേശാഭിമാനി മാതൃഭൂമി മലയാള മനോരമ എന്നിവയാണ് പിന്നെ ഇംഗ്ലീഷ് ടൈംസ് ഓഫ് ഇന്ത്യയും കിട്ടാറുണ്ട് എനിക്കിതിൽ പ്രിയപ്പെട്ട പത്രം എന്ന് പറയാൻ ഞാനങ്ങനെ പത്ത് എല്ലാ പത്രങ്ങൾ ഇന്ന പത്രങ്ങളെ അനുകൂലിക്കുന്നു അങ്ങനെയില്ല ഞാൻ കിട്ടുന്ന പത്രമൊക്കെ ഞാൻ വായിക്കും പറ്റുന്ന സമയങ്ങളിൽ വായിക്കാറുണ്ട് അല്ലാതെ ഞാൻ ഇന്ന പത്രത്തിനെ അനുകൂലിച്ച് ഇത് വരെ നിന്നിട്ടില്ല എൻ്റെ വീട്ടിൽ മലയാള മനോരമയാണ് വരുത്തുന്നത് എനിക്കിപ്പോൾ മലയാള മനോരമ ഇപ്പോൾ കൂടുതലും ഫ്രണ്ട് പേജ് ഫുള്ളും പരസ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പേജ് ഫുള്ളും അതങ്ങ് പോകും പിന്നെ അകത്തേക്കകത്തേക്ക് വരുമ്പോഴാണ് കായികം പ്രാദേശികം വാരാന്ത്യം അങ്ങനെ കുറച്ച് ഇതുള്ളത് അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രദേശികമാണ് കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വീടിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അതിൽ നോക്കിയാൽ എനിക്ക് അറിയാൻ പറ്റും ഉദാഹരണത്തിന് എന്തെങ്കിലും ഇനാഗുറേഷനോ അടുത്ത ഏതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും ഓഡിറ്റോറിയം ഇനാഗുറേഷനോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ പ്രദേശികമായിട്ടുള്ള കാര്യങ്ങളറിയാൻ എനിക്ക് ഈ പ്രാദേശികം എന്ന് പറയുന്ന ഒരൂ കോളമെനിക്ക് ഉപകാരപ്പെടാറുണ്ട് അത്കൊണ്ടെനിക്ക് ഇഷ്ടമാണ് പിന്നെ സ്പോട്സും ഞാനധികം നോക്കാറില്ല സ്പോട്സിനോട് എനിക്ക് അത് വല്യ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ കോളം ഞാൻ നോക്കാറില്ല അതൊഴികെ ബാക്കിയുള്ള മിക്ക കോളങ്ങളും ഞാൻ നോക്കാറുണ്ട് പിന്നെ അത് മാത്രമല്ല അതിൽ അതിന് പുറത്തേക്ക് വരുന്ന ചില പതിപ്പുകളുണ്ട് ഈ ഞായറാഴ്ച തോറും വരുന്ന പതിപ്പുകൾ അത് കുറച്ച് ഇൻ്ററെസ്റ്റിങ്ങാണ് കാരണം അതിൽ ബാക്കിയുള്ളവരുടെ രചനകൾ പിന്നെ അവരുടെ അനുഭവ കഥകൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അത് എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമാണ്